ഈ വ്യത്യസ്ത പഠന ശൈലികളുള്ള നല്ല കഴിവുകളുള്ള വിദ്യാർത്ഥികൾ എന്താ പറയണേ വിദ്യാർത്ഥികളെ സ്കൂളുകൾക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരിക്കും കാരണം എന്നു വെച്ചാൽ അവർ അവർ ഭയങ്കരമായിട്ട് അവർക്കിപ്പോൾ സ്പോർട്സാണ് ഇഷ്ടമെങ്കിൽ സ്പോർട്സിനുവേണ്ടി വന്നു കഴിഞ്ഞിട്ടൊരു വേറൊരു നല്ല വേറെ സ്കൂളാണ് സ്പോർട്സിൻ്റെ സ്കൂളല്ലെങ്കിൽ അവർക്ക് ഭയങ്കര പാടായിരിക്കും അതുപോലെ പല പഠനശൈലി ഈ ഇപ്പോൾ എന്താ പറയണെ നോക്കി വായിച്ചാൽ പഠിക്കുന്നവർക്കായി ഇതിങ്ങനെ എഴുതി പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വിഷയമുണ്ടാവും അതൊക്കെ ഭയങ്കര ഇഷ്യുവാണ് അതുപോലെ അതുപോലെ പല കഴിവ് അതിപ്പം എന്താ പറയണെ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനൊരുത്തൻ ഇപ്പോൾ നോക്കി വായിക്കാൻ ഭയങ്കര ഇപ്പോൾ നോക്കി വായിക്കാൻ മാപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഐഡൻ്റിഫൈ ചെയ്യാനും മറ്റേ പിച്ചറ് നോക്കിയിട്ട് ലേണിങ്ങ് പിക്ചർ ലേണിങ്ങ് ഭയങ്കരമായിട്ട് എളുപ്പമായിരുന്നു പക്ഷെ അവന് ഈ എഴുതാൻ ഭയങ്കര പാടാണ് എഴുതി പഠിച്ച് പഠിച്ച് എഴുതിയിട്ട് നോട്ടെഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ചുമ്മ വായിച്ചു നോക്കുകയല്ലേ അപ്പോഴങ്ങനെ വരുമ്പോഴത്തേനും ഭയങ്കര പാടായിരുന്നു ആ സമയത്ത് ഇങ്ങനെയൊരു പരിപാടി ചെയ്യുമ്പോൾ അവന് ഭയങ്കര പാടായിരുന്നു ഇങ്ങനെ അല്ലാതെ ഈ നോട്ട് എഴുതി പഠിപ്പിക്കല് എന്നാു വെച്ചാൽ അവനല്ലാതെ പഠിക്കുകയുള്ളായിരുന്നു അപ്പോൾ അവനെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ ഈ കാര്യങ്ങളെല്ലാം ഒരു പി ഡി എഫായിട്ട് നോക്കിയിട്ട് പി ഡി എഫ് എടുത്ത് നോക്കി വായിച്ച് പഠിക്കുമായിരുന്നു ആ സമയത്ത് അവൻ അല്ലാതെ നോട്ടെഴുത്തിനെക്കുറിച്ച് നോട്ടെഴുതി പഠിക്കുന്ന ആ പരിപാടി അവനില്ലായിരുന്നു അതിനുപകരം മിക്കവാറും അവനൊന്നെങ്കിൽ കൂട്ടുകാരോട് എഴുതിത്തരാൻ പറയും എന്നു വെച്ചാൽ അവന് നോട്ടെഴുതാൻ ഭയങ്കര മടിയായിരുന്നു അതുകൊണ്ടായിരുന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വ്യത്യസ്ത വർണ്ണശൈലി വർണ്ണശൈലിയും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്ക് ആണ് അതുപോലെ സ്പോർട്സിൻ്റെ കാര്യം ഭയങ്കര ഇതാണ് കാരണം വെച്ചാൽ സ്പോർട്സ് സ്പോർട്സ് നല്ലതായിട്ട് ഒരു പരിപാടിയിലായിട്ട് ഭയങ്കരമായിട്ട് സ്പോർട്സിനെ ഇരിക്കുന്ന ഒരു പുള്ളിക്ക് ഒരു കുട്ടിയാണെങ്കിൽ അവൻ അപ്പോൾ അവന് അവന് അവിടെ നിൽക്കാൻ ഭയങ്കര പാടായിരിക്കും കാരണം എന്നു വെച്ചാൽ അവൻ്റെ അവൻ്റൊരു ലോകവും ഈ പറയണ ലോകവും ഭയങ്കര വ്യത്യാസമായിരിക്കും എന്നു വെച്ചാൽ ഇപ്പോൾ സ്പോർട്സ് സ്കൂ സ്പോർട്സ് സ്കൂളിൽ പോകേണ്ട സമയത്ത് സ്പോർട്സ് വന്നിട്ട് ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം വച്ചിട്ടുണ്ടെങ്കിൽ അവന് അവൻ്റെ കഴിവ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല ചുമ്മാ അവനവിടെ പോയിരുന്നിട്ട് ഈ പരിപാടികളും ജോലികളൊക്കെ ചെയ്യാമെന്നല്ലാതെ പഠിത്തമൊക്കെ ചെയ്യാമെന്നല്ലാതെ അവൻ്റെ സ്പോർട്സിക്കുന്ന അതുപോലെ ഇപ്പം അങ്ങനെ സാധാ ആയിട്ടുള്ള സ്പോർട്സ് സാധാ ആയിട്ടുള്ള സ്പോർട്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ സാധാ ആയിട്ടുള്ള സ്പോർട്സ് മത്സരമൊക്കെ വരുമ്പോഴത്തേനും അവന് പഴയ കഴിവുകളൊന്നും ഒരു റീക്യാപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ലായിരിക്കും കാരണം എന്നു വെച്ചാൽ അത് ഭയങ്കര പാടായിരിക്കും അത് ഒരു വിഷയമായിട്ട് നോക്കണം കാരണം എന്നു വെച്ചാൽ കാരണം അവന് അവൻ്റെ കഴിവ് വളർത്താൻ അതായത് ഇപ്പോൾ അവനിപ്പോൾ സ്റ്റേറ്റ് ലെവല് കഴിഞ്ഞ് നാഷണല് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവന് സ്റ്റേറ്റ് ലെവലായെങ്കിൽപ്പോലും അത് നടക്കത്തില്ല ആ പരിപാടിയൊക്കെ അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ആ അതൊരു വലിയ ഇഷ്യുവാണ് ആ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഞാനൊന്ന് എക്സ്പീരിയൻസും അവന് കഴിവ് വളർത്താനുള്ള ഒരു കോച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഭയങ്കര എന്നു പറയണ അവൻ്റെ കഴിവ് ഒന്നും വളരില്ല കാരണം എന്നു വെച്ചാൽ അങ്ങനൊരു സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ പഠിത്തം മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പഠിത്തം മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും അതൊക്കെയാണ് അതൊക്കെയാണ് ഇങ്ങനെ വ്യത്യസ്ത കഴിവുകളും പഠന ശൈലികളുള്ള പിള്ളേരെ എടുത്തിട്ട് പിള്ളേരെ കുട്ടികൾ സ്കൂളുകൾക്ക് അങ്ങനെയുള്ള സ്കൂളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് കൂടുതൽ എന്താ പറയുക കഴിവുകൾ വളർത്താൻ പറ്റുള്ളൂ അതുപോലെ ഇപ്പോൾ ചില കോളേജുകൾ കാണും കോളേജല്ല സ്കൂളുകൾ അങ്ങനെ സ്വയമായിട്ട് പ്രൈവറ്റായിട്ട് നടത്തുന്നത് അവർ മെയിനായിട്ട് ഇപ്പോൾ എന്താ പറയണത് ഈ പിള്ളേരായിട്ട് പഠിപ്പിക്കാൻ എന്നിട്ട് അവരുടെ കോളേജിന് പേരു വളർത്താനൊക്കെ ആയിരിക്കും നോക്കണത് അപ്പോൾ സ്പോർട്സ് കോട്ടയെന്നു പറഞ്ഞാൽ അങ്ങനെ കോട്ടയോ അങ്ങനെയല്ല കഴിവുള്ള പിള്ളേരെ ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും അവർക്ക് അതിൽ പോകാൻ പിന്നെ ഇപ്പോൾ സ്പോർട്സ് സ്പോർട്സ് ഭയങ്കര സ്പോട്സാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ആ കാര്യങ്ങൾ കാരണം എന്നു വെച്ചാൽ ഞങ്ങളെ എനിക്ക് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ അവന്മാർ പെട്ടു പോയതാണിങ്ങനെ ഒരുത്തൻ ബൈ അല്ലറ്റി എന്ന മറ്റേ ഈ ഓട്ടമില്ലേ ഓട്ടം പരിപാടിക്ക് ഭയങ്കര ഭയങ്കര സെറ്റപ്പായിട്ട് ഓടുകയൊക്കെ ചെയ്യുമായിരുന്നു ചെക്കന് വിഷയം അത് വെച്ചാൽ ചെക്കന് ഓടി എന്താ പക്ഷെ അവൻ ചെന്ന് കയറിയ സ്ഥലം ഭയങ്കരമായിട്ട് ഈസ്റ്റ് പഠിപ്പിൽ മാത്രമുള്ള സ്ഥലമായിരുന്നു പ്രൈവറ്റായിട്ടുള്ള അപ്പോൾ ചെക്കന് ഈ കഴിവ് നോക്കാൻ പറ്റിയില്ല അപ്പോൾ ചെക്കന് ചെക്കന് സ്റ്റാമിന ആയാലും ചെക്കൻ നാഷണൽ അടിച്ചുകൊണ്ടിരുന്ന ചെക്കനെ ഇപ്പോൾ സ്റ്റേറ്റ് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അപ്പോഴങ്ങനെ വെറുതെ കഴിവു നശിപ്പിക്കുന്ന പരിപാടികൾ ഉള്ള ഒരു സ്കൂളിലോട്ട് എന്തിന് വെറുതെ പോകുന്നത് അത് ഭയങ്കര പാടായിരിക്കും അതുപോലെ പല ചില ആൾക്കാർ എന്നു പറയാം ഇപ്പോൾ ഒരു സിനിമയുണ്ടല്ലോ മറ്റേ ഒരു കൊച്ചിൻ്റെയൊരു സിനിമയുണ്ട് പെട്ടെന്ന് എന്നാൽ പടത്തിൻ്റെ പേര് മറന്നുപോയി അതിനകത്ത് കൊച്ച് ഫയങ്കരവായിട്ട് മാക്സിന് ഭയങ്കര പെട്ടന്ന് എല്ലാ കാര്യങ്ങളും ഇക്വേഷനൊക്കെ ആയാലും പെട്ടന്ന് അഞ്ച് വയസ്സുള്ള കൊച്ച് പെട്ടന്ന് ക്യാച്ചപ്പ് ചെയ്തിട്ട് എഴുതിയൊക്കെ വെക്കും പക്ഷേ ബാക്കിയാർക്കും അത് ഉൾകൊള്ളാൻ പറ്റുന്നില്ല അവരുടെ കാരണം എന്നു വെച്ചാൽ അഞ്ച് വയസ്സുള്ള കൊച്ചെങ്ങനെ ഇത്രയും പെട്ടന്ന് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുന്നതൊക്കെ ഓർത്താൽ പക്ഷേ ആ കൊച്ചിൻ്റെ മറ്റേ മാത്സ് ലെവല് അതിലും ഹൈയായിരുന്നു അതു വെച്ച് പുതിയ ഇക്വേഷനൊക്കെ ഉണ്ടാക്കുന്നു ആ അഞ്ച് വയസ്സിൽ ഏഴ് വയസ്സിൽ അങ്ങനെ ഒരു വലിയ സംഭവമായി മാറുന്നു അതുപോലെ എന്നു വെച്ചാൽ അവർ ആ അവളാദ്യം വെച്ചയൊരു സ്കൂളൊരു പോക്ക് സ്കൂളായിരുന്നു പിള്ളോരെയൊക്കെ ഇങ്ങനെ ഗുണിക്കാനും കൂട്ടാനൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളായിരുന്നു അവളിതൊക്കെ സിമ്പിളായിട്ട് ചെയ്തു അങ്ങനെ അവൾക്കത്രയും കഴിവുള്ള കൊച്ച് പിന്നെ വേറൊരു എന്താ പറണത് വേറെയൊരു നല്ലൊരു ഓഡ് യൂണിവേഴ്സിറ്റിയിലോട്ട് കയറിയിട്ട് അത്യാവശ്യം ഒരു വലിയ പുതിയ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നൊരു വലിയൊരു നല്ലൊരു കഥയാണ് അങ്ങനെയൊക്കെയുണ്ട് അപ്പോഴങ്ങനെ വ്യത്യസ്തമായ കഴിവുകളുള്ളൊരു വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയൊരു സാധാ സ്കൂളുകൾ ഉൾകൊള്ളാൻ ഭയങ്കര പാടായിരിക്കും